എനിക്ക് വളരെ മോശമായ ഒരു അനുഭവമാണ് എനിക്ക് ഡെലിവറി ബോയുടെ കയ്യ് ഭാഗത്ത് നിന്നുണ്ടായത് ഞാനൊരു സ്വിഗിയിൽ നിന്ന് ഞാനൊരു ഫ്രെയ്ഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അയാൾ ഞാൻ ഒരു മണിക്കൂറിനുള്ളിൽ കൊണ്ടെത്തിക്കണം എന്ന് പറഞ്ഞ് അയാൾ ഓ കൊണ്ടെത്തിക്കാം എന്ന് പറഞ്ഞു പക്ഷേ അയാൾ കൊണ്ടുവന്നത് നാല് മണിക്കൂറിന് ശേഷമാണ് കൊണ്ടുവന്നത് അത് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾക്ക് അതിന് ശേഷമാണ് ഞാൻ കൊണ്ട് ഞാനൊരു പന്ത്രണ്ട് അരക്കാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ അയാൾ കൊണ്ടുവന്നത് വളരെ വൈകുന്നേരം ആയപ്പോഴാണ് കൊണ്ടു വന്നത് അത് എനിക്ക് വളരെ ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവമായി തോന്നി എന്നിട്ട് ഞാനത് വേണ്ട എന്ന് പറഞ്ഞ് ഞാനത് തിരിച്ചയക്കാൻ നോക്കിയപ്പോൾ അയാൾ അത് കൂടാതെ എടുത്തെ പറ്റൂ എന്നുള്ള രീതിയിൽ അയാൾ സംസാരിക്കുകയുണ്ടായി വളരെ മോശമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് അയാളുടെ ഭാഗത്ത് നിന്നുണ്ടായത്